ആ ഹലോ നമസ്കാരം

സാറേ ഞാന് അഡ്മിഷന്റെയൊരു കാര്യത്തിന് വേണ്ടി വന്നതാണേ ആ അപ്പോൾ ഞാനിപ്പോൾ എറണാകുളത്തായിരുന്നു വര്ക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പാലക്കാട്ടേക്ക് ട്രാന്സ്ഫര് ആയി ഇപ്പം എം വി ഡിയുടെ ഓഫീസില് ആണേ ആ ഏ മൂത്ത മോനിപ്പോൾ രണ്ടാം ക്ലാസ്സിലായിരുന്നു പിന്നെ ചെറിയ ആളെ എല് കെ ജിയും ചേര്ക്കണം പിന്നെ രണ്ട് പേരുണ്ട് ചെറിയ ആളിനെ എല് കെ ജിയും ചേര്ക്കണം അപ്പം രണ്ട് പേര്ക്കും കൂടെ അഡ്മിഷന്റെ കാര്യം ആ അവന് നേരത്തെ അവിടെ സെന്റ്റ് രാഫെല്സിലായിരുന്നു പഠിച്ചത് എറണാകുളത്തേ അപ്പോൾ ട്രാന്സ്ഫര് ആയപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഏഹ് ആ ഇവിടെ ഇവിടെ താമസിക്കാനായിട്ട് ആ ഇവിടെ റെന്റിനാണ് സാറേ ആ കോട്ടേഴ്സിൽ അല്ല റെന്റിനൊരു വീടെടുത്തിരിക്കുകയാണ് അതെ അതെ ആ ആ ഒരാള് രണ്ടാം ക്ലാസിലേക്ക് ആണ് അപ്പം അതിന്റെ ഫീസ് എങ്ങനെയാണ് സാറേ നമുക്ക് രണ്ടാം ക്ലാസിലേക്ക് ആ ആ ഓക്കെ ബുക്ക്സിന്റെയൊക്കെ ബുക്ക്സ് സെപറേറ്റ് ആണോ ആ അത് ശരി അവർക്ക് പിന്നെ ക്ലാസ്സ് ഇത് പി ടി എ അങ്ങനത്തെ പരിപാടിയൊക്കെ ആ ശരി നമ യൂണിഫോമിന് അല്ലേ യൂണിഫോം എക്സ്ട്രാ ആണോ നമ്മൾ പിന്നെ ഇവിടെ അങ്ങനെ അല്ലേ ബസിന്റെ എങ്ങനെയാണ് സാറേ നമ്മൾ ഇവിടെ വീട്ടിലേക്ക് ക്ലാസ്സിലേക്ക് ഇവിടേക്ക് ഒരു മൂന്നു കിലോമീറ്ററിന്റെ അടുത്തൊക്കെ ഉണ്ടേ ആ ആ എനിക്ക് എന്തായാലും രണ്ട് പേരുണ്ടല്ലോ ചിലപ്പോൾ എല്ലാ ദിവസം കൊണ്ടുപോയി വിടലൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ബസ് എന്തെങ്കിലും സൗകര്യം അപ്പോൾ അതിന് ആ ഓക്കെ ഈ ആ അത്രയും അത് അത്രയും ഉണ്ടാവില്ല കുറവായിരിക്കും എറൗണ്ട് ആ ഒരു നാല് കിലോമിറ്ററിന്റെ അടുത്തൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു പക്ഷേ സ്ഥലമൊന്ന് പുതിയതായത് കാരണം ആ അതെ ആ എന്നാൽ ശരി പിന്നെ ഞാന് എന്താണ് ചോദിക്കാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കരികുലര് ആക്ടിവിറ്റീസ് സ്പോര്ട്സ് അങ്ങനെത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി വൈകുന്നേരം സ്പെഷ്യല് ആയിട്ട് കൊടുക്കുന്നുണ്ടോ ആ അതൊക്കെ നമ്മൾ ഈ ക്ലാസ്സ് കഴിഞ്ഞിട്ട് നടത്താൻ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ടൈമിലേക്ക് ഓ ഓ ഓക്കെ ഓക്കെ അങ്ങനെ അല്ലേ അപ്പോൾ മ്യൂസിക് ക്ലാസിനൊക്കെ അപ്പം എങ്ങനെയാണ് സാര് റേറ്റ് അത് ഓരോന്ന് ഓരോ റേറ്റ് ആണോ ആ ഞാൻ ഓ അപ്പോൾ ഞാൻ ഓക്കെ ഞാന് മൺഡേ വൈഫിനെയും പിള്ളേരേയും കൂട്ടിയിട്ട് എന്നാൽ ക്ലാസിലേക്ക് ഒരു ചേരാന് വേണ്ടി വരാം നമ്മൾ ഇനി സ്ലോട്ട് ബുക്ക് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഡയറക്റ്റ് വന്ന് അഡ്മിഷന് എടുത്താൽ പോരേ ആ എന്നാൽ ഞാൻ ഓഫീസിൽ ഓഫീസിൽ പോയിട്ട് ഡീറ്റെയില്സ് ഇതും പറഞ്ഞ് കൊടുക്കാം ഏതായാലും തിങ്കളാഴ്ച വരാം ആ ഓക്കെ എന്നാൽ ശരി സാറേ ഞാൻ തിങ്കളാഴ്ച വരാം ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ശരി ഞാൻ അവിടെ മുൻപിൽ പറഞ്ഞിട്ട് ഓഫീസിൽ പറഞ്ഞിട്ടേ ഡീറ്റെയില്സും പറഞ്ഞ് കൊടുക്കാം ഞാൻ ആ ഞാന് വിളിച്ചോളാം സാറേ ഈ നമ്പറില് വിളിച്ചോളാം മ് ശരി ആ ആ